കൂടുതൽ മരങ്ങൾ നട്ടു പിടിക്കാൻ എൻ്റെ പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിച്ച ഏറ്റോം വലിയ മാർഗ്ഗമെന്തെന്ന് വച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരു വശങ്ങളിലും ബദാം പോലുള്ള അതുപോലെ തന്നെ ഒരുപാടൊരുപാട് തണൽ വൃക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ നാട്ടുകാർ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ സ്കൂള് സ്കൂൾ കുട്ടികൾക്ക് അത് വളരെ വലിയൊരു ഉപകാരം ഉപകാരപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ മരം മുറിക്കുന്നതിനെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം വളരെ മനുഷ്യൻ്റെ നീചമായ പ്രവർത്തി തന്നെയാണ് ഈ മരം മുറിക്കുന്നത് എന്നുള്ള കാര്യം പരിസ്ഥിതിക്ക് വളരെ ദോഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മരം മുറിക്കുന്നത് മനുഷ്യൻ അവരുടെ ദൈനംദിനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരത്തിൻ്റെ തടി എന്ന് പറയുന്നത് ഒഴിച്ച് കൂടാൻ വേണ്ടി പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് വിറകുകൾക്കും അതുപോലെ തന്നെ ഫർണീച്ചറുകൾക്കും തടി കൊണ്ടുള്ള മറ്റ് കരകൗശല വസ്തുക്കൾക്കും വേണ്ടീട്ട് മരങ്ങളെ ആശ്രയിക്കാണിപ്പോൾ മനുഷ്യൻ പക്ഷേ മനുഷ്യന് തന്നെ അറിയാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ഈ മരമില്ലായെങ്കിൽ മണ്ണൊലിപ്പ് അല്ല എങ്കിൽ ഒരു വളരെ വലിയൊരു പ്രകൃതി ക്ഷോഭം വന്ന് കഴിഞ്ഞാൽ പോലും മരങ്ങൾ മനുഷ്യനെ തുണയായിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്നത് പക്ഷേ ഈ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ തികച്ചും സ്വാർത്ഥൻ തന്നെയാണ് അവൻ അവൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടീട്ട് മരങ്ങളും മരങ്ങളെയും പരിസ്ഥിതിയെയും വളരെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്നതാണ് അപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായംന്ന് വച്ച് കഴിഞ്ഞാൽ മരം മുറിക്കുന്നതിലൂടെ മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടൊരുപാട് പ പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്ക് തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രദേശം വളരെ മാതൃകാജനകമായിട്ടുള്ള ഒന്നാണ് കാര്യം നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് കാ ഇതുപോലുള്ള ഈ മരം നട്ട് പിടിപ്പിക്കൽ എന്നുള്ളതും അത് അതിൽ അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ബർത്ത് ഡേയ്ക്ക് പിറന്നാളിന് തന്നെ പുള്ളി ഒരു നൂറ്റി അൻപതോളം വൃക്ഷ തൈകൾ റോഡിന് സാ സൈഡിൽ മുഴുവനും നട്ടുവെന്നുള്ള കാര്യം വളരെ സന്തോഷ ജനകമായ ഒരു കാര്യം തന്നെയാണ് അപ്പം ഞങ്ങളുടെ പ്രദേശത്ത് സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മ്മ തന്നെയുണ്ട് ഈ ഒരു മരങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ വേണ്ടീട്ട് വളരെ നല്ല പൗരബോധമുള്ള പൗരന്മാർ തന്നെയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ളത് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്